കുട്ടികൾ ഇന്നത്തെ കാലത്ത് കളിക്കുന്ന പുതിയ കളികളാണ് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ബാസ്ക്കറ്റ്ബോൾ ബേസ്ബോൾ സോഫ്റ്റ്ബോൾ വോളിബോൾ ക്യാരംസ് ബാഡ്മിൻറൺ ടെന്നീസ് സ്കേറ്റ്ബോർഡിങ് മൊബൈൽ ഗെയിമുകൾ പസിലുകൾ ഇതെല്ലാം